ലൈബ്രറി അല്ലേ എനിക്ക് ആടുജീവിതം എന്ന ബുക്ക് വേണമായിരുന്നു അപ്പോൾ അതിന്റെ ബുക്ക് അവിടെ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണേ എനിക്ക് മെമ്പര്ഷിപ്പ് ഒന്നുമില്ല ഞാൻ അപ്പോൾ മെമ്പര്ഷിപ്പ് ഒക്കെ എടുക്കാന് എങ്ങനെ ആയിരുന്നു ആയിരത്തഞ്ഞൂറ് രൂപയാണോ

ആ ഇത് ആ ബുക്ക് ഒരു ഒരു ദിവസം എടുത്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ തിരിച്ച് തരണം അങ്ങനെ ഒക്കെ അങ്ങനെ വല്ലതും ഉണ്ടോ ഓ അങ്ങനെയുണ്ടല്ലേ ആ നിങ്ങളുടെ ലൈബ്രറിയിൽ ഏതൊക്കെ ലാംഗ്വേജസിലെ ബുക്കുകൾ അവൈലബിൾ ആണ് ആ അറ്റ് എ ടൈം എത്ര പേര്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് മുപ്പത് പേര്ക്ക് ഉണ്ടല്ലേ ആ ഇതിന് സമയം എപ്പോഴാണ് തുറക്കുന്നത് ആ വൈകുന്നേരം ആറ് മണി വരെ അപ്പം എല്ലാ ആഴ്ചയില് എല്ലാ ദിവസവും ഉണ്ടോ സണ്ഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ടല്ലേ ആ പിന്നെ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ ഇടയ്ക്കിറങ്ങിയ ആല്ക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഒക്കെ ഉണ്ടോ ആല്ക്കമിസ്റ്റ് ഉണ്ടല്ലേ ആ നമ്മൾ ഒരു ബുക്ക് ഇപ്പം ഒരു ബുക്ക് ഇപ്പോൾ മിസ്സിങ്ങ് ഒക്കെ ആവുവാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് അത് മിസ്സ് ആകുവാണെങ്കിൽ ഓ അങ്ങനെ

പിന്നെ മെമ്പര്ഷിപ്പ് എടുക്കാന് എന്തെങ്കിലും ഡോക്യുമെൻറ് ഒക്കെ കൊണ്ടുവരണോ ഇപ്പം ഞാനാണ് ഇപ്പോൾ മെമ്പര്ഷിപ്പ് എടുക്കുന്നതെങ്കിൽ എന്റെ വീട്ടിലുള്ള ആര്ക്ക് വേണമെങ്കിലും വന്ന് ബുക്ക് എടുക്കാന് അങ്ങനെ ഒക്കെ പറ്റുമോ അങ്ങനെയാണല്ലേ

എന്നാൽ ശരി ഞാന് അങ്ങോട്ട് വരുന്നതിനുമുമ്പ് ഞാൻ വിളിക്കാം